നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളുമൊക്കെ അകറ്റാന് ഈ ഗെയ്മുകള് ഭയങ്കരമായിട്ട് പ്രാധാന്യം നൽകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഏകദേശം ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു മണിക്കൂർ നമുക്ക് മറ്റൊരു കാര്യങ്ങളൊന്നും ആലോചിക്കാതെ മറ്റൊരു ലോകത്ത് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന വസ്തുക്കളാണ് ഈ കായിക വിനോദങ്ങളും മറ്റ് ഗെയ്മുകളും കാര്യങ്ങളുമൊക്കെ പിന്നെ ആരോഗ്യപരമായ കണക്കെടുകയാണെന്നുണ്ടെങ്കില് അതും ഒരു കായിക വിനോദങ്ങള് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത് ഏകദേശം ഫുട്ബോളൊക്കെ കളിക്കുന്നയാള് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നല്ല ഫിറ്റ്നസ് ബോഡി കായികക്ഷമത ഇതൊക്കെ ഉള്ള ആളുകളായിരിക്കും പിന്നെ നല്ല മാനസിക ഉല്ലാസത്തിനും കായിക വിനോദങ്ങൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അത് പോലെ തന്നെ പിന്നെ വെറുതെ വീട്ടിലിരുന്ന് മൊബൈൽമെ കളിച്ചിരുക്കുക അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇങ്ങനെ വിനോദത്തില് കായിക വിനോദത്തില് ഏർപ്പെടുകയാണ് ആരോഗ്യപരമായി നല്ലത് മെൻ്റല് കപ്പാസിറ്റിയും പിന്നെ നമ്മളെ കായിക ക്ഷമതയും വർധിക്കാന് അതൊരു കാരണമാണ് പിന്നെ ഒരു ഒരു മണിക്കൂറെങ്കില് ഒരു മണിക്കൂർ നമ്മൾ നല്ല സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കാന് ഈ കായിക വിനോദങ്ങൾ കൊണ്ട് കഴിയും അത് മറ്റേ ടെൻഷനും മറ്റും മാറ്റാനും മാറാനും ഇത് ഉപകാരപ്പെടും